ചേട്ടാ പിന്നെ ഇപ്പം നമ്മൾ എത്ര ടൈം കൊണ്ട് എത്തും കുറച്ച് ടൈം ആകുമോ എനിക്ക് എനിക്ക് അതായതു പെട്ടെന്ന് എത്തണമായിരുന്നു ഒരു ഇന്റർവ്യൂ ആയിരുന്നേ പത്തു മണിക്ക് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആണെന്ന് നമ്മൾ അറിയില്ലല്ലോ ആ ശരിയാ ശരിയാ ചേ ചേട്ടാ വേറേതെങ്കിലും വഴിയുണ്ടോ അതായതു ഏതെങ്കിലും ഊടുവഴി കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നത് കാരണം പത്തുമണിക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ ഇന്റർവ്യൂ വല്ലാണ്ട് മിസ് ആയി പോകും അപ്പോൾ ഭയങ്കര അത് ഭയങ്കര ഒരു പ്രശ്നായിരിക്കും അതുകൊണ്ടാണ് ഞാനീ ചോദിക്കുന്നത് ആ ചേട്ടന് വേറെവിടെങ്കിലും എത്തിക്കാൻ പറ്റുവോ ഈ ബ്ലോക്ക് തീർന്നിട്ട് നമ്മൾ എപ്പം പോകാനാണ് അങ്ങനാണോ ആണോ എന്നാൽ ആ റൂട്ട് വഴി ഒന്നു പോയി നോക്കിയാലോ നമുക്ക് എന്നാല് ആ ഓക്കെ എന്നാൽ ഏട്ടൻ ഓട്ടോ ഒന്നു തിരിച്ചോ നമുക്കെന്നാൽ ആ വഴി കുറച്ച് ദൂര ദൂരമുണ്ടല്ലോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ബ്ലോക്ക് ചിലപ്പം കഴിഞ്ഞില്ലെങ്കിലോ കാരണം അങ്ങ് വരെയില്ലേ ബ്ലോക്ക് നമുക്ക് ചിലപ്പം പുറകെ പോയി നിന്ന് നമുക്ക് എത്താൻ പറ്റില്ല ചിലപ്പം ഞാന് പത്തുമണിക്ക് എത്തില്ലേ എനിക്കാ ഇന്റർവ്യൂ മിസ് ആവുകയും ചെയ്യും അപ്പം നമുക്കെന്തെന്നാൽ ആ വഴി പോവാം ആ എത്തുമല്ലേ ഒമ്പതേമുക്കാലൊക്കെ ആകുമ്പം എത്തിയാൽ മതി എന്നാലും കുഴപ്പമില്ല ആ ഓക്കേ ഓക്കേ